കുട്ടിക്കാലം മുതൽ ഞാൻ ഇങ്ങനെ ആർട്സ് എക്സിബിഷനൊക്കെ കുറേ പോയിട്ടുണ്ട് അപ്പോൾ അവിടത്തെ ഓരോരോ ഇന്നോവേറ്റീവായിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഒത്തിരി സന്തോഷവും അത്ഭുതവും നമുക്ക് തോന്നാറുണ്ട് ഞാൻ ഏറ്റവും അധികം ആർട്സ് എക്സിബിഷന് പോയിട്ടുള്ളത് ആദ്യം ആയിട്ട് പോയിട്ടുള്ളത് എനിക്ക് ഞാൻ പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് ആ സമയത്ത് ഒരു ട്രെയിനിലായിരുന്നു ഈ എക്സിബിഷൻ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് സ്കൂളിൽനിന്ന് വിട്ടതായിരുന്നു അപ്പോൾ ഒത്തിരി നമ്മൾക്ക് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ ഇനി വരുന്ന ജീവിതത്തിൽ എനിക്ക് പഠിക്കാൻ കിട്ടുമെന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആർട്സ് എക്സിബിഷൻ വരുമ്പോൾ ഞാൻ എൻ്റെ രീതിയിലത്തെ ചെറിയ ചെറിയ കോണ്ട്രിബ്യൂഷൻസ് കൊടുക്കാൻ ശ്രമിക്കാറുമുണ്ട്